പതിമൂന്ന് അഞ്ച് രണ്ടായിരം ഇരുപത്തിമൂന്ന് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്